ഞങ്ങളുടെ നാട്ടില് എല്ലാ ചൊവ്വാഴ്ചയും ചന്ത നടത്താറുണ്ട് ചന്തയില് പ്രാദേശിക വിഭവങ്ങളും പച്ചക്കറി ഉണക്ക മീൻ ഒരു വിധം എല്ലാ പച്ചക്കറിയും പച്ചക്കറി എന്നാല് കയ്പ്പ വെണ്ടയ്ക്ക തക്കാളി ബീന്സ് കാരറ്റ് ബീറ്ററൂട്ട് കുമ്പളന് മത്തന് പടവലം ഇങ്ങനെയുള്ള എല്ലാവിധ വസ്തുക്കൾ എന്തെല്ലാം നാട്ടിന് പ്രദേശത്ത് ഉണ്ടോ അതെല്ലാം എത്തും തന്നെയുമല്ല അത് നല്ല ശുദ്ധമായ അത് കലര്പ്പില്ലാത്ത വിഷരഹിതമായ പച്ചക്കറികൾ ആയിരിക്കും കൂടുതൽ വരിക അതേമാതിരി തന്നെ അത് ആ പ്രദേശത്ത് ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന കാരണത്താല് എല്ലാ വീട്ടുകാരും അവിടത്തേക്ക് വരികയും

മാനിത്തട്ട ചേമ്പ് ചേന കാവുത്ത് ഇങ്ങനെയുള്ള കിഴങ്ങുവര്ഗങ്ങളും ധാരാളം വരുന്നുണ്ട് അതും നമുക്ക് അവിടെനിന്ന് സുലഭമായി വാങ്ങാവുന്നതാണ് എന്നാല് മാര്ക്കറ്റ് വിലയേക്കാള് ഇവിടെ നമ്മുടെ ചന്തയില് സാധനങ്ങള്ക്ക് കുറച്ച് വിലക്കുറവും ഉണ്ടാവും ഈ വിലക്കുറവുള്ള കാലത്തന്നെ പല ഭാഗത്ത് നിന്നും പഞ്ചായത്തിലെ മാത്രമല്ല അടുത്ത പഞ്ചായത്ത് നിന്ന് പോലും ഞങ്ങളുടെ ഇതിലേക്ക് വരുന്നുണ്ട് ധാരാളം സാധനങ്ങള് സ്റ്റോക്കുള്ള കാരണത്താലും ജനങ്ങള്ക്ക് എത്ര ആളുകള് വന്നാലും അവിടെ സാധനം ഉണ്ടാകും അതിനാല് രാത്രി വരെയും ചന്ത നീണ്ടു നില്ക്കുന്നതാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും തുടങ്ങിയാല് ജനങ്ങള്ക്ക് നല്ല വിഷ രഹിതമായ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും കിട്ടും എന്നാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത